ആ പറഞ്ഞോളൂ ആ പറഞ്ഞോ അപ്പോൾ ഇതെന്ത് ഇത്ര വൈകിയത് എന്തായിരുന്നു ട്രാൻസ്ഫർ കിട്ടി അല്ലേ ആ ഓക്കെ ഓക്കെ അപ്പോൾ ഇപ്പം ചേരുന്നതിന് കുഴപ്പം ഒന്നും ഇല്ല ഏകദേശം സീറ്റ് കാര്യങ്ങൾ ഒക്കെ ഫുൾ ആയിട്ടുണ്ട് പക്ഷേ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും കുഴപ്പം ഒന്നും ഇല്ല പിന്നെ ഇപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഡൊണേഷനും കാര്യങ്ങളും എന്താണ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അഞ്ചാം ക്ലാസിൽ അല്ലേ കുട്ടി പഠിക്കുന്നത് ഇപ്പം ഒരു ലക്ഷം രൂപയാണ് ഇവിടെ ഡൊണേഷനും കാര്യങ്ങൾ ഒക്കെ വരുന്നത് പിന്നെ ഫീസ് അമ്പതിനായിരം രൂപ എക്സ്ട്രാ വരും കേട്ടോ ആ പിന്നെ ഡ്രസ്സിന്റെ അതായത് ഇപ്പോൾ യൂണിഫോം കാര്യങ്ങൾ ഒക്കെ ഞങ്ങൾ ഇവിടെ നിന്നുതന്നെ പ്രൊവൈഡ് ചെയ്യും അപ്പം അതിന്റെ എമൗണ്ടും കൂടെ നിങ്ങൾ ചെയ്യേണ്ടി വരും ആ പിന്നെ വേറെ എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ആ വണ്ടി സൗകര്യങ്ങൾ ഒക്കെ ഞങ്ങൾ ഇവിടത്തന്നെ പ്രൊവൈഡ് ചെയ്യുകയാണ് പിന്നെ നിങ്ങൾ ഇപ്പം പറഞ്ഞില്ലേ പഠിക്കുന്നതാണ് കാരണം നമ്മള ഇവിടുത്തെ കോഴിക്കോട് ജില്ലയിലെ ജില്ലയിലെ തന്നെ ഒന്നാം സ്ഥാനത്താണ് നമ്മള ഇവിടുത്തെ പിള്ളേർ കാര്യങ്ങൾ ഒക്കെ പഠിക്കുന്നതൊക്കെ നല്ല രീതിയിൽ ഉള്ള ആ അപ്പം നിങ്ങൾ അതുകൊണ്ട് പേടിക്കേണ്ട ഇവിടുത്തെ ടീച്ചേഴ്സ് ഒക്കെ നല്ല രീതിയിൽ പഠിപ്പിക്കും അവരൊക്കെ നല്ലവണ്ണം എജ്യൂകേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് നമ്മൾ ഇവിടെ എടുത്തേക്കുന്നത് അപ്പം ക്ലാസിന്റെ കാര്യത്തിലും പഠിത്തത്തിന്റെ കാര്യത്തിലും നിങ്ങൾ വേറെ കാര്യങ്ങളോ പേടിക്കുവോ അങ്ങനെ ഒന്നും വേണ്ട ഇവിടെ വന്ന് ചേർന്നാൽ മാത്രം മതി ഇപ്പം എന്തായാലും പെട്ടെന്ന് തന്നെ ചേർന്നോളൂ കാരണം പോർഷൻസ് ഒക്കെ അങ്ങ് എത്തിയിട്ടുണ്ട് നിങ്ങൾ പെട്ടെന്ന് ചേരുവാണെങ്കിൽ നല്ലതായിരിക്കും ഓ അതൊക്കെ ഞങ്ങൾ റെഡി ആക്കിക്കോളാം കുഴപ്പം ഒന്നും ഇല്ല ആ അത് കുഴപ്പം ഒന്നും ഇല്ല അതൊക്കെ ഞങ്ങൾ റെഡി ആക്കിക്കോളും ഇപ്പം സിലബസ് മാറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം കുട്ടിക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ബസ് അല്ലേ ബസ് ആ ഓക്കെ ഓക്കെ അങ്ങനെ ആണെങ്കിൽ ഇപ്പോൾ നോക്കട്ടെ മൺഡേ വന്ന് ടി സിയും കാര്യങ്ങൾ ഒക്കെ എടുക്കണം